ഹലോ അതെ ആ ആ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഒന്ന് സ്പെസിഫിക്ക് യ്യാ ആ ചെയ്യുവോ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ മ് മെയിൻ ഡെസ്റ്റിനേഷൻ എന്താണ് സാർ ആ ഓക്കെ ഓക്കെ ഓക്കെ സീ ഓ ഓക്കെ ഓക്കെ ഐ കാൻ ഹെൽപ്പ് യു ഓ ഓ ആ നല്ലവണ്ണം അവൈലബിൾ ആണ് നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ ആണ് ഇപ്പം മെയിനായിട്ട് നമുക്ക് സീ ഫുഡ് ഒക്കെ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സ്ഥലം മ് അതെ അതെ അപ്പോൾ നമുക്ക് ആലപ്പിയിലേക്ക് പോവാം അവിടെ ആണെങ്കിൽ എല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടും അവിടെ കടൽ മാത്രം അല്ല സീ ഫുഡ്സ് മാത്രം അല്ല നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കായൽ കായലിലുള്ള ഫുഡ്സ്സ് ഒക്കെ ഇല്ലേ കായലിലുള്ള ഫിഷ് അതും കിട്ടും അതും അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് പിന്നെ ജസ്റ്റ് ട്രിപ്പിംഗിന് വേണ്ടി ഈ ഹൗസ് ബോട്ട് അങ്ങനത്തെ പലതരം കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടെ ഓൾ ഇൻ ഓൾ ഇൻ വൺ പ്ലേസ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ആലപ്പുഴ ആയിരിക്കും ബെറ്റർ ചോയ്സ് മ്

അതിനേക്കാട്ടും ബെറ്റർ അല്ല അല്ല അതിനേക്കാട്ടും ബെറ്റർ ബെറ്റർ ഒരു ഓപ്ഷൻ ഞാൻ പറയട്ടേ ഒരു നിങ്ങൾക്ക് എന്തായാലും ട്രിപ്പ് ട്രിപ്പ് ആണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കൊരു ഹൗസ് ബോട്ടോ മറ്റോ എടുക്കുവാണെങ്കിൽ ഒരു രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് ഒരു ഹൗസ് ബോട്ട് എടുക്കുവാണെങ്കിൽ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷെഫ് ഉണ്ടാവും നമുക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് പറയുന്ന ഫുഡ് നിങ്ങൾക്ക് ഏത് ഫുഡ് വേണം അതിനനുസരിച്ച് നിങ്ങള കൺവീനിയൻസിന് അനുസരിച്ച് നമുക്ക് ഫുഡ് പ്രിപ്പേറ് ചെയ്ത് തരും അത് ആണങ്കിൽ നമുക്ക് പിന്നെ വേറെ എവിടെയും പുറത്തും പോകേണ്ട ആവശ്യം ഇല്ല എല്ലാം അതിൻ്റെ ഉള്ളിൽനിന്ന് തന്നെ നമുക്ക് ആ ബഡ്ജറ്റ് നമുക്ക് ഓക്കെ അല്ല ബഡ്ജറ്റ് നമുക്ക് ഇ അല്ല ഇ ആ ആയിക്കോട്ടെ അല്ല ഇപ്പം പറയാനും പറ്റില്ല നമുക്ക് മുൻകൂട്ടി പറയാനും പറ്റില്ലല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല അത് ഒരിക്കലും അത് ഒരിക്കലും ഇല്ല ഓ കോളിറ്റിയിൽ നമ്മൾ അല്ലെങ്കിലും ഒരു കോംപ്രമൈസും ഇല്ല അത് ഷുവർ ആണ് ഓ അത് നമ്മളെ നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ അവിടെ ഹോം സ്റ്റേ അല്ലാണ്ട് റിസോർട്ടുകൾ എല്ലാം ഉണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാം ആയിക്കോട്ടെ ആ കൺഫേം ആക്കിയിട്ട് ഒരു കാര്യം ചെയ്യ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി

ഓക്കെ ഓക്കെ ഞാൻ അയച്ചുതരാം അയച്ചുതരാം ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ